എഴുത്തിലൂടെ നമുക്ക് ഒത്തിരി കാര്യങ്ങള് നേടിയെടുക്കാനായിട്ട് സാധിക്കും കാരണം നമ്മുടെ തൂലിക ചലിപ്പിക്കുമ്പോൾ നല്ല ആശയങ്ങള് നമുക്ക് ആ എഴുത്തിലൂടെ മറ്റുള്ളവരിൽ നമുക്ക് എത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും ഇപ്പോൾ പണ്ട് ഒര് കാലത്ത് കൂടുതലും എഴുത്തിലൂടെയാണു എല്ലാവരും കണ്ട് നമുക്കറിയാം ലെറ്ററുകൾ നമ്മൾ ഓർക്കുന്നുണ്ടാകും എന്നും നമ്മുടെ വീടുകളിൽ സ്ഥിരം വന്നുകൊണ്ടിരുന്ന ലെറ്ററുകള് നമ്മള് ദൂരെ ഉള്ള ഇപ്പോൾ നമ്മുടെ അങ്ക്ളായിക്കോട്ടെ ആൻറ്റിയായ്ക്കോട്ടെ നമ്മുടെ മാതാപിതാക്കളായിട്ട് ജോലിസ്ഥലങ്ങളിൽ അവർക്കെല്ലാം നമ്മള് കത്തയക്കാറുണ്ട് തിരിച്ചും അപ്പോൾ മാസത്തിലൊക്കെ കത്തുകൾ ഓരോ മാസവും അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്താൻ അവരുടെ വിവരങ്ങളറിയാനും ഈ കത്ത് മാത്രമേ നമുക്ക് അന്ന് ഒര് കാലഘട്ടത്തില് ലെറ്റർ ഇത് മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളു ആ കത്തുകളിലൂടെയാണ് മുഴുവൻ നമ്മുടെ വ്യക്തികളും കുടുംബങ്ങളുമെല്ലാം ഈ വിവരങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പം അതൊക്കെ മാറി കത്തുകളിപ്പോൾ അയക്കുന്നില്ല നമുക്കറിയാം പണ്ട് ഈ ക്രിസ്മസ്സൊക്കെ വരുമ്പോൾ നമുക്കറിയാം എന്ത് ക്രിസ്മസ് കാർഡുകളാണ് നമ്മളോരോ ബന്ധ്ക്കൾക്കും ഇങ്ങനെ അയക്കുവാണ് ക്രിസ്മസ് കാർഡുകൾ അതിങ്ങനെ വീട്ടിലോട്ട് ക്രിസ്മസ്സിനെല്ലാം ഈ കാർഡ്കള് വരിക ഇപ്പം അങ്ങനെ ഒന്നും ഇല്ല കാർഡാരും വായിക്കാറുവില്ല അയ്ക്കാറുവില്ല അപൂർവ്വം ഇത് മാത്രമേ ഉള്ളു അതിൻ്റെയൊക്കെയൊരു കാലഘട്ടവൊക്കെ നിന്ന്പോയി ഇന്നിപ്പം നമ്മൾ എഴുത്തിന് പകരം മൊബൈലിലൂടെയാണ് കാര്യങ്ങളെല്ലാം മെസ്സേജ് വിടുന്നു വരുന്നു അങ്ങനെ വാട്സാപ്പിൽ അയക്കുന്നു ഫോട്ടോ അയക്കുന്നു എല്ലാം ഇന്ന് മൊബൈല് വഴി പക്ഷേ മൊബൈലിനകത്തൂടെത്തന്നെ പലപ്പോഴും നമ്മൾ ഈ എഴുത്തിൻ്റെ ഒരു മേഖലയായ കാര്യങ്ങളെഴ്തി അയക്കാറുണ്ട് പലപ്പോഴും അത്കൊണ്ടാണ് എഴുത്തൊരിക്കലും നമ്മുടെ നമുക്ക് ഉപേക്ഷിക്കാൻ മേലാത്തെയൊരു കാര്യമാണ് കാരണം നമ്മുടെ എന്ത് കാര്യമായിക്കോട്ടെ അത് മറ്റുള്ളവരിലെത്തിക്കുവാൻ എഴുത്തുകൾ ഒര് ആവശ്യമാണ് അതിൻ്റെ ലക്ഷ്യങ്ങളും ഇതൊക്കെത്തന്നെയാണ് നമുക്ക് ആ നേട്ടങ്ങളൊക്കെ കൈവരിക്കണമെങ്കിൽ എഴുത്തിലൂടെ മാത്രമേയുള്ളു നമുക്കറിയാം ഒരെഴ്ത്ത് ഇപ്പോൾ ഒരപേക്ഷ നമ്മൾ ഇപ്പോൾ ഒര് കാര്യത്തിന് ഒരു മത്സരത്തിൽ പങ്കെടുക്കണം ഉടനെ ഒരു എഴുത്ത് വഴിയാണ് ആ മത്സരത്തിന് ഇന്നയിത് അത്പോലെതന്നെ അപേക്ഷയായ്ക്കൊള്ളട്ടെ അതെല്ലാം എഴുത്തിലൂടെയാണ് അയക്കുന്നത് ഒരു ഇപ്പം പല സർട്ടിഫിക്കേറ്റ് അതിനപേക്ഷയാണ് നമ്മളെടുക്കുന്നത് ഇന്നയൊരു സർട്ടിഫിക്കേറ്റ് വേണം ഇപ്പൊരു പഞ്ചായത്തിലാകട്ടെ റെസിഡൻസ് സർട്ടിഫിക്കേറ്റ് അതിന് നമ്മളൊരു അപേക്ഷ എടുക്കുകയാണ് ഓണർഷിപ്പ് അതും ഒരു എഴുത്താണ് ആ എഴുത്തിലൂടെ മാത്രമേ ആ സർട്ടിഫിക്കേറ്റ് നമുക്ക് തിരിച്ച് ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പം അത് എഴുത്തുകൾ നമുക്ക് അതൊന്നും മാറ്റിമറിക്കാൻ പറ്റുന്ന കാര്യമല്ല നമ്മുടെ കാലഘട്ടത്തിന് അനുസരിച്ചത് വലിയൊരു കാര്യം തന്നെയാണ് എഴുത്തുകൾ അത്പോലെതന്നെ നമുക്കറിയാം ദൂരെ സ്ഥലങ്ങളിൽ ഒക്കെയാണേലും ഇന്നെത്ര രാജ്യം പുറത്താണേലും ഇന്ന് മൊബൈൽ റൈറ്റിങ് മൊബൈലിലൂടെത്തന്നെ കാര്യങ്ങളിന്ന് അയക്കുകയാണ് കാര്യങ്ങൾ അതിൻ്റെ മറുപടിയും മൊബൈലിലൂടെ തന്നെ ഫോണിപ്പം നമ്മളങ്ങോടും ഇങ്ങോടും വിളിച്ച് കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക പലപ്പോഴും ഫോൺ വിളിച്ച് കിട്ടാറില്ല അപ്പോൾ നമ്മളെന്താ ചെയ്യുക മൊബൈലിലൂടെ തന്നെ അതിൻ്റെ മെസ്സേജ് അയക്കുക ആ മെസ്സേജ് അവിടെ ചെല്ലുന്നു തിരിച്ച് അതിൻ്റെ മെസ്സേജ് തിരിച്ച് വരുന്നു അതുപോലെ തന്നെ നമ്മള് പരാതികളായിക്കൊള്ളട്ടെ പലപ്പോഴും നമ്മള് ഗോൺമെൻറ്റ്കൾക്കെതിരെ ഉള്ള പരാതികള് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്കൾക്കെതിരെ ഉള്ള പരാതികള് അതെല്ലാം നമ്മൾ എഴുത്ത് വഴിയാണ് അയക്കുന്നത് അത് ചിലപ്പം നമ്മുടെ നമ്മുടെ ചീഫ് മിനിസ്റ്റർക്ക് ചിലപ്പം എഴുതും ആർക്കുവേണേലും അയക്കാം അത് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് അയക്കാം അതുകൊണ്ട് മന്ത്രിമാർക്ക് കത്തയക്കാം ആർക്ക് വേണേലും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടയം ഇപ്പം നമ്മുടെ കലക്റ്ററ് നമ്മുടെ ഒരു ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു അധികാരകേന്ദ്രമാണ് ആ കളക്റ്റർക്ക് നമുക്ക് കത്തയക്കാം കത്തയക്കുന്നതിൽ തെറ്റില്ല കളക്റ്റർക്ക് അത് വായിക്കാം അതിന് മറുപടി ഇടാം അതുപോലെതന്നെ പല കാര്യങ്ങൾക്കും നമ്മൾക്ക് സംശയമുള്ള കാര്യങ്ങൾക്കെല്ലാം കത്തയക്കാറുണ്ട് എല്ലാമത് ശരിയാകണമെന്നൊന്നുമില്ല കത്ത് ആർക്ക് വേണേലും അയക്കാം ഒര് സംശയത്തിൻ്റെ പേരിൽ കത്തയക്കാം അതിന് മറുപടി ഇപ്പം ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ആയിക്കോട്ടെ സർക്കാര് തലത്തിൽ ആയിക്കോട്ടെ ആ അത് അതിനെ ഉദ്ദേശിക്കുന്ന ആ കാര്യത്തിനെല്ലാം മറുപടിയവര് തരാറുണ്ട് ശരിയാകണമെന്നില്ല തെറ്റാകണമെന്നില്ല പക്ഷെ അവര് മറുപടി തരാറുണ്ട് അത് ഒരു കത്തയക്കുന്നത് കൊണ്ടാണ് നമുക്ക് റിട്ടർൻ ആയിട്ട് തന്നെ നമുക്ക് കിട്ടുകയാണ് അതിൻ്റെ വ്യക്തത അതിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാവുകയാണ് ആ മനസ്സിലാകുന്നതിൽ നമുക്കൊരു ഒരു പരിധിവരെ നമ്മുടെ പ്രശ്നങ്ങളത് പരിഹരിക്കാനായിട്ട് പറ്റും കത്ത്കളിലൂടെ അപ്പോൾ നമുക്കറിയാം ഓരോ ഒരു കേരളത്തിലെ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ്കള് ആർ ട്ടി ഓഫീസറോടുള്ള പല സംശയങ്ങൾക്കും പലപ്പോഴും അത് റിട്ടർൻ ആയിട്ട് തന്നെ പലപ്പോഴും എഴുത്തയക്കാറുണ്ട് കളക്ടറുകളിൽ കക്ട്രേറ്റിലേക്ക് പലപ്പോഴും നമ്മള് കലക്ട്രക്ക് അത് റിട്ടർൻ ആയിട്ട് തന്നെ അപേക്ഷിക്കാറുണ്ട് അത് പോലെതന്നെ മറ്റ് മേഖലകള് കെ എസ് ഇ ബി എന്തേലും സംശയങ്ങളൊക്കെ എഞ്ചിനിയർക്കോ എക്സിക്യൂട്ടീവ് എഞ്ചിനിയർക്കോ നമുക്കറിയാം കെ എസ് ഇ ബി ആയിട്ട് ബന്ധപ്പെട്ട് സംശയം ഉണ്ടവിടെ നമ്മളത് അയക്കാറുണ്ട് അതുപോലെ ആരോഗ്യമേഖലയെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പലപ്പോഴും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങള് മാലിന്യവുമായി ബന്ധപ്പെട്ടും നമ്മുടെ ആരോഗ്യമേഖലയായിട്ട് ബന്ധപ്പെട്ട് ആശുപത്രി ഹോസ്പിറ്റല്കള് അതുപോലെ തന്നെ അങ്ങനെ ഉള്ള സി എച്ച് സി കള് അവിടെയൊക്കെ പലപ്പോഴും കത്തുകളാണ് നമുക്കേറ്റവും ആവശ്യം കാരണം അതിൻ്റെ പ്രശ്നങ്ങള് പലപ്പോഴും അവിടെ ചിലപ്പം എന്തേലും അവര് ഡോക്ടറില്ല നേഴ്സില്ല അല്ലെ ആ സ്റ്റാഫിൻ്റെ പ്രവർത്തനങ്ങളെ ആശുപത്രികളിൽ പലപ്പോഴും ഒത്തിരിയേറെ വൃത്തിഹീനമായി കിടക്കാറുണ്ട് അങ്ങനെ ഉള്ള ഒത്തിരിയേറെ പ്രശ്നങ്ങള് അവിടെയൊക്കെ വരാറുണ്ട് അതെല്ലാം പരിഹരിക്കണമെങ്കിൽ പലപ്പോഴും കത്തുകൾ മുഖേന അപ്പം ഒരു ആശുപത്രി ഉദാഹരണം വിടുക ആശുപത്രികളിൽ നമുക്ക് പരിഹരിക്കാന് പറ്റുന്നില്ല സി എച്ച് സി യിലോ അല്ലെൽ ആശുപത്രിയിലോ ഉടനെ നമ്മൾ എന്താണ് ചെയ്യുക നമ്മൾ അവിടുന്ന് നമ്മുടെ ആൾക്കാർക്ക് ഡി എം ഓ യ്ക്ക് ജില്ലയിലെ ഇതുവായിട്ട് ബന്ധപ്പെട്ട കത്താണ് അയക്കുന്നത് അല്ലാ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചല്ല സംസാരിക്കുന്നത് നമ്മള് ഇന്നയിന്ന അപര്യാപ്തത ഈ ഹോസ്പിറ്റലിൽ ഉണ്ട് ഈ ആശുപത്രിയിൽ ഉണ്ട് അത് നമ്മൾ എഴുത്തിലൂടെയാണ് അയക്കുന്നത് അല്ല അതുപോലെ തന്നെ കലക്ടർക്ക് നമുക്ക് ഇന്ന അല്ല റേഷൻ കാർഡ് ഇന്ന പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിക്കാന് പറ്റുന്നില്ല കരണ്ട് ജില്ലയിലെ മൊത്തം കാര്യങ്ങള് അപ്പോൾ കളക്ടർക്ക് നമുക്ക് വ്രീട്ടൻ ആയിട്ട് നമ്മള് എഴുത്തുകളിലൂടെ അയക്കാറുണ്ട് അതുപോലെ തന്നെ മറ്റ് മേഖലകളിൽ ഡിപ്പാർട്ട്മെൻറ്റ് സർക്കാർ തലത്തിൽ ഉള്ള മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരുൾപ്പെടെയുള്ള സർക്കാർതലത്തിൽ ഉള്ള കാര്യങ്ങളൊക്ക അത് വല്ലതും നമ്മള് പലപ്പോഴും ഈ കത്ത്കള് ഈ കാര്യത്തിനെല്ലാം ഉപയോഗിക്കാറുണ്ട് കത്തുകളിലൂടെ മാത്രമേ ആ കാര്യങ്ങള് നമുക്ക് ഉദ്ദേശിച്ച ഫലപ്രാപ്ത്തിയിലെത്തുവാനായിട്ട് നമുക്ക് സാധികത്തുള്ളൂ അത് ഇന്ന് കണ്ട് വരുന്ന ഒരു സംരംഭം ഏത് കാര്യത്തിനും ഇന്ന് മനുഷ്യൻ കത്തുകളിലൂടെ പരാതികളിലൂടെ ഇന്ന് അതിനെല്ലാം നമ്മളെഴ്ത്ത് മായ്ട്ട് ബന്ധപ്പെട്ടാണ് മുന്നോട്ട് പോകുന്നത് അതിൻ്റെയൊരു പരുപാടിയും തിരിച്ചും മറുപടിയും വരാറുണ്ട് മറുപടിയിപ്പം ശരിയാകണമെന്നില്ല അല്ലേ ശരിയായാലും ശരിയല്ലേലും ആ ഒരു കറക്റ്റ് കാര്യങ്ങള് നമുക്ക് പറഞ്ഞ് തന്നേ പറ്റത്തുള്ളൂ അതാണ് അതിൻ്റെയൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് ഉള്ളത് അത്പോലെതന്നെ ചിലപ്പം ചില ഡിപ്പാർട്ട്മെൻറ്റ്കളെട്ത്ത് അവിടെ ഉദ്യോഗസ്ഥരിൽ എന്നപോലെ പ്രവർത്തിക്കുന്നില്ല ഉടനെ നമ്മള് പരാതി അതിൻ്റെ മേലുദ്യോഗസ്ഥർ അയച്ചുകൊടുക്കുകയാണ് അപ്പോൾ അതിന് മറുപടി ഇന്നതാണെയെന്ന് പറഞ്ഞ് അതിന് മറുപടി പലപ്പോഴും വരാറുണ്ട് ആ ആ മറുപടിയുടെ വെളിച്ചത്തിലാണ് പിന്നെ നമ്മുടെ ആ തദ്ദേശ കത്തുവന്ന് കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടി എടുക്കേണ്ടതാണ് നടപടിയെടുക്കുകയും ഡിസ്മിസ് ചെയ്യേണ്ട കേസാണെൽ ഡിസ്മിസ് ചെയ്യും ഒക്കെ ഈ ഇതുവായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാറുണ്ട്